എന്റെ ജില്ലയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് അതിൽ ഒന്നാണ് തിരുനെല്ലി അമ്പലം വള്ളിയൂർക്കാവ് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടൊരു അമ്പലം എന്നു പറയാം ഒരുപാട് ഐതിഹ്യങ്ങൾ നീണ്ടുനിൽക്കുന്ന ഒരു അമ്പലമാണ് തിരുനെല്ലിയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായ അമ്പലങ്ങളാണ് ഒരുപാട് ഉത്സവങ്ങളുണ്ട് അപ്പം വിഷുവിനാണ് അവിടെ ഉത്സവം അതുപോലെത്തന്നെ പതിനാല് ദിവസത്തെ ഉത്സവമാണ് വള്ളിയൂർക്കാവിൽ വരുന്നത് ഒട്ടുമിക്ക ജനങ്ങളും ഒത്തുകൂടുന്ന ഉത്സവങ്ങളിലൊന്നാണ് സമൂഹത്തിലെല്ലാ ആൾക്കാരും എത്തിപ്പെടുന്ന ഒരു ഉത്സവമാണിത് വലിയ ഉത്സവങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കുന്നത് അതുപോലെത്തന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് അങ്ങനെ അഷ്ടമിയുണ്ട് രോഹിണി നാളിലുണ്ടാവുന്നുണ്ട് അങ്ങനെ കാർത്തിക വിളക്കുണ്ട് അങ്ങനെ ഒരുപാട് എന്താ പറയുക ഉത്സവങ്ങളെ കൊണ്ടും പുതുവത്സരത്തിനൊക്കെ നമ്മൾ ഒരുപാട് ആഘോഷങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നുണ്ട്